ആ ചേച്ചി വരൂ എവിടേക്ക് പോകാനാണ് ആ പറഞ്ഞോളൂ അവിടെ ഈ ഓക്കെ അവിടെ ഹിൽ സ്റ്റേഷൻ പോകാൻ ആയിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ എ ആ വൺ വീക്കിന് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ ഓക്കെ അവിടെ നല്ല സ്ഥലം ആണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര പേര് ഉണ്ടാകും എങ്ങനെ ആണ് ആ ഫാമിലി ആയിട്ട് പോകാനാണോ അതോ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല ഒരു പാക്കേജ് ഒക്കെ തന്നെ ആണ് അവിടെ ഉള്ളത് ഇപ്പോൾ ഒരാഴ്ച്ചയെന്നല്ലേ പറഞ്ഞത് ഒരാഴ്ച ഓക്കെ നമ്മൾക്ക് ഇപ്പോൾ നല്ല സീസൺ ആണ് പോകാൻ പറ്റിയ കാലാവസ്ഥയും നല്ല ക്ലൈ ആ നല്ല അതെ അതെ കോഡിറങ്ങുന്ന സമയമാണ് നമുക്ക് നല്ല സീസണും കാര്യങ്ങളൊക്കെ ആണ് അപ്പം കാണാൻ ആണെങ്കിലും അതേപോലെ നല്ല ഒരു ഫീൽ കിട്ടുന്ന ഒരു ടൈമും കൂടി ആണ് ഇപ്പോൾ നമുക്ക് ആ നമുക്ക് അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകും നമുക്ക് ഇപ്പോൾ ഹോട്ടൽ ആണെങ്കിലും അതേപോലെ ഫുഡും അക്കോമഡേഷൻ ഒക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അതിപ്പോൾ എങ്ങനെയാണ് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് അതേപോല സെറ്റ് ചെയ്തുതരാൻ പറ്റും ആ ഇപ്പോൾ ഏത് വിധത്തിലുള്ള ഫുഡ് വേണമെങ്കിലും നമുക്ക് അവിടെ റെഡി ആക്കാൻ പറ്റും അപ്പോഴേക്ക് അപ്പോഴേ ഉണ്ടാക്കി തരുന്നതു കൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട് അപ്പം ഈ ഏത് ഫുഡ് ആണ് ഇപ്പോൾ നോൺ ആണെങ്കിലും വെജ് ആണെങ്കിലും ഏത് ആണെങ്കിലും ആ നോൺ ഉണ്ടാകും അത് നിങ്ങൾക്ക് ഏത് വേണോ അതിന് അനുസരിച്ച് അവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ ഹിൽ സ്റ്റേഷൻ ആണെങ്കിലും എല്ലാ ഹിൽ സ്റ്റേഷൻ നമുക്ക് കയറാനും പറ്റിയ ഒരു ടൈം കൂടി ആണ് ഇപ്പോൾ ആ ക്ലൈമറ്റ് കൊള്ളാം നല്ല ക്ലൈമറ്റാണ് ആ ഒരാഴ്ച താമസിക്കുക പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരാൾക്ക് ഒരാഴ്ചയ്ക്ക് നാലായിരം രൂപയാണ് വരുന്നത് ഫുഡ് ആൻഡ് അല്ല എല്ലാം ഫുൾ പാക്ക് നാലായിരം രൂപയാണ് വരുന്നത് ഒരാൾക്ക് ഒരു ഫാമിലിക്ക് അല്ല ഒരാൾക്ക് അപ്പോൾ ഏഴ് ദിവസം അല്ലേ പറഞ്ഞത് ആ ഏഴ് ദിവസത്തിന് നാലായിരം രൂപയാണ് ഒരാൾക്ക് വരുന്നത് ആ നാലായിരം രൂപ മറ്റേ ഇപ്പോൾ നാല് ആൾക്ക് പറയുമ്പോൾ പതിനാറ് രൂപ വരും ഓക്കെ ആ അപ്പോൾ അങ്ങനെ വീട്ടിൽ നമുക്ക് ഫുഡും അക്കോമഡേഷനും അതേപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ പുറത്തു നിന്ന് എന്തെങ്കിലും മേടിക്കാൻ ഇനി എക്സ്ട്രാ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം നിങ്ങളുടെ കൈയ്യിൽ നിന്ന് നിങ്ങൾ സെപ്പറേറ്റ് കൊടുത്ത് മേടിക്കേണ്ടി വരൂള്ളൂ ബാക്കി എല്ലാം ഇതിൽ പെടും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതേപോലെ യാത്ര കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ ആ ആ നാലായിരം പിന്നെ ഞങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് കുറച്ച് ഹിൽസ് ആണ് ഉള്ളത് ഞങ്ങളുടെ ലിസ്റ്റിൽ ഉള്ളത് അത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകണമെന്നോ അങ്ങനെ എങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെയും പോകാം അതിന് മാത്രം അഡീഷണൽ ആയിട്ട് ആ ആ ആ എക്സ്ട്രാ ചാർജ് വേണ്ടി വരും അല്ലാണ്ട് ബാക്കി എല്ലാം ഇതിൽ പെടും ആ ഒരു അഞ്ച് ആറ് ഹിൽ സ്റ്റേഷനുണ്ട് അവിടെ അത് നല്ല വിഷ്വൽ നമുക്ക് രാവിലെ കയറി വന്നാൽ വൈകുന്നേരം ഇറങ്ങാൻ പറ്റുന്ന പോലത്തെ ഹിൽ സ്റ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ അത് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ബാക്കി അഡീഷണൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ടി വരും അതെ വണ്ടി എല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും നമ്മൾ ഇവിടെ ആ ഗൈഡ് എപ്പോഴും ഉണ്ടാകും കൂടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം കൂടെ എപ്പോഴും ഉണ്ടാകും അപ്പം നമുക്ക് പോവുകയാണെങ്കിലും പേടിക്കാണ്ട് പോയി വരാം ഇനി എന്ത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഓക്കെ ശരി